ഞാൻ ആദായനികുതി കറക്റ്റ് ആയിട്ട് അടയ്ക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളുമായി കോൺടാക്ട് ചെയ്യുന്നത് കുറേ മുമ്പ് തന്നെ എനിക്ക് സംശയങ്ങളുണ്ടായിരുന്നു ആ സംശയങ്ങളൊന്ന് ക്ലിയറ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പം അതിന് വേണ്ടി എന്തൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സിങ് പ്രോഗ്രസ്സിംങ് ഒക്കെ ഒന്ന് വ്യക്തമാക്കി തന്നാൽ അതിനനുസരിച്ച് ചെയ്യാമായിരുന്നു എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജറും കാര്യങ്ങളൊക്കെ ധാരളം സംശയങ്ങളുണ്ട് നിങ്ങൾ അതൊന്ന് വ്യക്തമാക്കി തന്നാൽ അതിൻറേതായ നടപടിക്രമങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാമായിരുന്നു എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ എന്നൊക്കെ ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ നമുക്ക് പറഞ്ഞ് തന്നാലും മതി ഏതെങ്കിലും രീതിയിൽ ഹെല്പ്പ് ചെയ്താൽ അത് വലിയൊരു ഉപകാരമാകും പൈസയുമായിട്ടുള്ള ഇടപാടല്ലേ അപ്പോൾ നല്ല രീതിയിൽ ആയാൽ നമുക്കും നിങ്ങൾക്കും അത് നല്ലൊരു കാര്യമാകും എന്നതു കൊണ്ടാണ് ഈ സംശയങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്